ഇന്ത്യൻ വിദ്യാഭ്യാസ സമ്പ്രദായം എന്ന് പറയുന്നത് പ്രീ പ്രൈമറി പ്രൈമറി ഹയർ സെക്കൻഡ്രി എന്നിങ്ങനെയാണ് തരംതിരിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും തുല്യ പങ്കാളിത്തമാണ് ഇന്ത്യൻ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഉള്ളത് ഇന്ത്യയിൽ ആറ് മുതൽ പതിനാല് വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധവുമായ വിദ്യാഭ്യാസമാണ് ഉള്ളത് ഇന്ത്യൻ വിദ്യാഭ്യാസം നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ എന്ന് പറയുന്നത് ഗവൺമെൻറ്റ് സ്കൂളിലേക്ക് കുട്ടികളുടെ പ്രവേശന കുറവ് തന്നെയാണ് അതല്ലാതെ തന്നെ ഇന്ത്യൻ വിദ്യാഭ്യാസം പ്രധാനമായും തിയറി എക്സാമിനെയാണ് ഫോക്കസ് ചെയ്യുന്നത് ഇത് കുട്ടികളുടെ പരീക്ഷാപ്പേടി ഉണ്ടാക്കുകയും അവർ പഠിച്ചിറങ്ങിയാൽ ജോലിയിൽ പ്രവേശിച്ച് പ്രാക്റ്റീസ് നോലെഡ്ജ് ഇല്ലാത്തതിനാൽ അവരുടെ കാര്യക്ഷമതയെ ബാധിക്കുകയും ചെയ്യുന്നു ഇതാണ് ഇന്ത്യൻ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ കുറവായി എനിക്ക് തോന്നിയിട്ടുള്ളത്